ഞങ്ങളുടെ പ്രദേശം ഒരു ഗ്രാമപ്രദേശാണ് ഇവിടെ ഒരുപാട് പോരായ്മകളുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വഴിയോ നല്ലൊരു നല്ലൊരു വഴിയോ നല്ലൊരു ആശുപത്രിയോ എല്ലാം പോരാഴ്മകളാണ് നല്ലൊരു ആശുപത്രി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ മുടക്കി മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെല്ലണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ദൂരവുമാണ് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നല്ലൊരു ആശുപത്രിയൊക്കെ വരുവാണേൽ ഒരുപാട് ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് പൊതു സൗ സൗകര്യങ്ങളൊരുപാട് കുറവുണ്ട് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ എല്ലാത്തിനും സർക്കാർ ജോലിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങള് വളരെ കുറവാണ് പി എസ് സി ടെസ്റ്റെഴുതിയാണേലും കുഞ്ഞുങ്ങളും ദൂരം കാവില് നിൽക്കുന്നതിനൊന്നും ഒരു ജോലി സാധ്യതയും കൂടെ ഇവിടെ ഉണ്ടാകണില്ല സർക്കാർ ജോലിക്കാര് വളരെ കുറവുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടേത് അതിന് ഒരുപാട് സർക്കാരിടപ്പെട്ട് അത് ഒരുപാട് കാര്യങ്ങള് ചെയ്ത് തരാനുണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ജോലിക്ക് ആശുപത്രികളിലേക്ക് ആശുപത്രി ഒന്ന് രണ്ട് സെൻ്ററുകള് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡോക്ടറും ഇല്ല നേഴ്സുമാരും വളരെ വിരളം മരുന്നുകളില്ല അവിടെ ചെന്നാൽ തന്നെ എല്ലാം അല്ലാത്ത മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് കുറിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് പിന്നെ നല്ല വഴികളാണേലും എല്ലാം കുറച്ച് റോഡുകളൊക്കെ ടാറിങ് റോഡുള്ളു അല്ലാതെല്ലാം എല്ലാം കോൺക്രീറ്റ് ഇച്ചിരി കോൺക്രീറ്റും ഇച്ചിരി ഇതുകൂട്ട് ടാർ ചെയ്തത് അങ്ങനെയൊക്കെ ആയ ചെറിയ ചെറിയ വഴികളൊക്കെയെ ഉള്ളു ഞങ്ങൾക്ക് നല്ലൊരു പ്രദേശമൊന്നുമില്ല അത് അതിനൊക്കെയുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഭാഗത്തേക്ക് നല്ല ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ പൊതു സ്ഥലങ്ങളില് അതായത് വെയ്റ്റിംഗ് ഷെഡും വഴി വഴിയിലൊരു പോസ്റ്റിട്ടൊക്കെയാണ് എല്ലാവരും വെയിറ്റിങ് ഷെഡായിട്ട് ഉപയോഗിക്കുന്നത് അതിലൂടെയൊക്കെ നല്ല അത്യാവശ്യം ഒന്ന് ഇരുന്ന് മഴ നനയാതെ വെയില് കൊള്ളാതെ ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒക്കെ തരികയാണെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ് അതിനൊക്കെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ബാങ്ക് ബാങ്ക് ഞങ്ങൾക്ക് കുറെ പൈസ മുടക്കി ബസ്സ് ബസ്സില് യാത്ര ചെയ്ത് വേണം ബാങ്കിലൊക്കെ പോകണമെങ്കില് ഞങ്ങളുടെ പ്രദേശത്തൊരു ബാങ്കൊക്കെ വരുവാണെങ്കില് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി സമയം ലാഭമുണ്ട് സാമ്പത്തിക ലാഭമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതിന് സമയം വേണം എല്ലാ ലാഭവുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അടുത്ത പ്രദേശത്ത് നല്ലൊരു സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ പൊതു ശൗചാലയം ഒന്നും ഇല്ല വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ച് വീട്ടിൽ വരേണ്ട ഒരവസ്ഥയുണ്ട് ഞങ്ങൾക്ക് ദുരിതം എല്ലാ പുരോഗതി ഇല്ലാത്ത പുരോഗമിക്കാത്ത ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പരാതികളാണ് മെയിനായിട്ടും സർക്കാരിന് ഭാഗത്തോട്ട് ചെയ്യാനുള്ള സർക്കാര് ഇടപെട്ടെന്നാൽ ഇതിനെല്ലാത്തിനും ഒരു അറുതി ഉണ്ടാകുമല്ലോ ഞാൻ നീതി നീതിപരമായ കാര്യങ്ങള് ചെയ്ത് കഴിഞ്ഞെന്നാൽ എല്ലാ കാര്യത്തിന് നല്ല വികസനം ഉണ്ടാകും ഇത് അതിലൊന്നും ഇടപെടാൻ ആർക്കും താല്പര്യമില്ല ഞങ്ങളുടെ റോഡാണെലും എല്ലാം പൊട്ടി പൊളിഞ്ഞ് സഞ്ച സഞ്ചരിക്കാൻ പറ്റാതെ വണ്ടി വണ്ടികളാണേലും വിളിച്ചാൽ പോകാനും നല്ല വളരെ ബുദ്ധിമുട്ടാണ് രോഗികളെയൊക്കെ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ആണെങ്കിലും നല്ല വഴിയില്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കസേരയിലൊക്കെ ഇരുത്തി ചുമന്നൊക്കെയാണ് ഇറക്കി കൊണ്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കുറവുകളുണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാം സർക്കാര് റോഡൊക്കെ ന നന്നാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് പക്ഷേ അതിനൊക്കെ ആരോടും പറഞ്ഞിട്ടും ആരും അതിനകത്തു താല്പര്യം എടുക്കുന്നില്ല നല്ലൊരു ആശുപത്രി അത് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ് നല്ലൊരു ആശുപത്രിക്കിടത്തി ചികിൽത്സിക്കുന്നവര് നല്ലൊരു ആശുപത്രി വന്നെന്നാല് അത് ഞങ്ങൾക്ക് ഒത്തിരി ഒരുപകാരപ്രദമായിരുന്നു രോഗികൾക്ക് പിന്നെ പാവപ്പെട്ടവർക്ക് വല്ല നല്ല മെഡിക്കൽ കോളേജ് പോലുള്ള നല്ല ആശുപത്രികള് വരുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടും ലാഭവുണ്ട് അതിന് പിന്നെ അങ്ങനെ നല്ലൊരു ബാങ്ക് ആണെലോ ഞങ്ങൾക്ക് ഒരു ബാങ്കുമില്ല ഒന്നുമില്ല ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ബാങ്കുമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് നല്ല നല്ല ബാങ്കൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് അതിലൊക്കെ നിക്ഷേപിക്കാൻ സാമ്പത്തിക പരമായിട്ടും ഒക്കെ ഉണ്ടാകണം എങ്കില് എങ്കിൽ പോലും ഉള്ള കാര്യങ്ങള് ഇടപാടുകള് നടക്കുന്നതിനും എല്ലാം നിങ്ങൾക്ക് ഒത്തിരി പൈസ മുടക്കി ഞങ്ങള് യാത്ര ചെയ്ത് വേറെ മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കിപ്പം നിലവിലുള്ളത് പിന്നെ സ്കൂള് സ്കൂളാണേലും നല്ലൊരു സ്കൂള് എൽ പി യു പി സ്കൂളൊക്കെ ഉണ്ടെങ്കിലും അത് ബാക്കി മെയിൻ മെയിൻ ആയിട്ടുള്ള ഹൈസ്കൂളുകളൊക്കെ ഇച്ചിരി ദൂരത്താണ് അതിന് കുഞ്ഞുങ്ങൾക്ക് പോകണമെങ്കിൽ വാഹനസൗകര്യം വണ്ടിയിലൊക്കെ കയറി ഒത്തിരി ദുരിതവാണ് പിള്ള കുഞ്ഞുങ്ങള് അനുഭവിക്കുന്നത് ഇപ്പം നല്ലൊരു സ്കൂളും എല്ലാം ഞങ്ങൾക്കടെ പ്രദേശത്തിന് അനിവാര്യമാണ് അതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ട എത്രത്തോളം ലഭിക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതിനോടെ എല്ലാം ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നല്ല രീതിയില് സർക്കാര് സഹായിച്ചാൽ എല്ലാം നന്നായിട്ട് പോകാവെന്നാണ് ഞങ്ങളുടെ വിചാരം ഓക്കെ